ആ പറഞ്ഞുകൊള്ളൂ ഞാൻ എന്റെ പേര് എന്റെ പേര് ജോര്ജ് എന്നാണ് ഞാനൊരൂ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആണ് താങ്കളുടെ ഒരു സ്ഥലം കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ ആ ടൗണിൽത്തന്നെ ഉള്ളതാ

ആ യെസ് ആ മ് കുട്ടനാട്ടിലേക്ക് ഇപ്പം ആള്ക്കാർ ഡിമാൻഡ് ഇല്ല അപ്പം അതിനേപ്പറ്റി നമുക്ക് അത് അതിന് താല്പര്യപ്പെട്ട ആള്ക്കാർ വന്നാല് മാത്രമേ അതിനേപ്പറ്റി നമുക്ക് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ആള്ക്കാരിപ്പം അങ്ങോട്ട് അവിടെയുള്ള ആള്ക്കാർ മുഴുവൻ സ്ഥലം വിട്ടിട്ട് ആലപ്പുഴക്കും ചെങ്ങനാശ്ശേരിക്കും പോയിക്കൊണ്ടിരിക്കുകയാ അപ്പം ആള്ക്കാർ അവിടെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഫ്ലഡ്ഡ് മറ്റേത് മറിച്ചേത് യാത്രാസൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ അങ്ങോട്ട് അത്തരത്തിൽ പോകാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ടൗണിലുള്ള സ്ഥലമാവുമ്പോൾ പെട്ടെന്ന് പോവും ടൗണിൽ എവിടെ ആണെങ്കിലും നല്ല റോഡ് സൗകര്യമുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് പോവും അവിടെ

നല്ലത് നല്ലത് നല്ലത് അത് കുറച്ച് പൈസ ഇപ്പം ഇപ്പഴാണെങ്കിൽ ബാങ്ക്കാർ ലോൺ കൊടുക്കും റിസോട്ട് പണിയാനൊക്കെ ബേങ്ക്കാർ ലോണ് കൊടുക്കും അപ്പം പൈസയുടെ പ്രശ്നം ഒന്നും ഇല്ല കാരണം അവർ റിസോട്ടിൻ്റെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ അവർ പരിഗണന കൊടുക്കുന്ന ഒരു ഒരു മേഘലയാണിപ്പം ടൂറിസം മേഘലയിൽ റിസോട്ട് ആണ് ഇപ്പം ഏറ്റവും നല്ല ഒരു പരിപാടി ഹൗസ്ബോട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പണിതിട്ട് കഴിഞ്ഞാൽ എല്ലാ കാലവും നമുക്ക് അതിനകത്ത് നിന്ന് വരുമാനം കിട്ടിക്കോണ്ടിരിക്കും അതുകൊണ്ട് അതിനെപ്പറ്റി നല്ലത് ചിന്തിക്കുക അത് എത്ര സെൻറ്റ് ഉണ്ട് അതെ അതെ അതെ അതെയോ കുഴപ്പം ഇല്ല എത്ര സെൻറ്റ് ഉണ്ട് പ്രോപര്ട്ടി റോഡ്സൈഡ് ഇപ്പം അവിടെ ആയതുകൊണ്ട് ഒരു ഒരു സെൻറ്റിന് ഒരു ഏഴ് ലക്ഷം രൂപ വച്ച് എ ടുക്കാം ആ ശരി ശരി ആയിക്കോട്ടെ അതിൻ്റെ നമുക്ക് അതിൻ്റെ പാര്ട്ടി ആയിട്ട് സംസാരിച്ചിട്ട് വേണ്ടെ നമുക്ക് അതിൽ മാറ്റം വരുത്താം പോരേ അതിന്റെ ആ അല്ല ഞാനൊരു ഏകദേശം ഒരു രൂപ പറഞ്ഞു എന്നേ ഉള്ളൂ അത് കുഴപ്പം ഇല്ല നമുക്ക് അതിൻ്റെ ആവശ്യക്കാരനെക്കൊണ്ട് കാണിക്കുമ്പം അവന് ഞാനിപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നേ ഉളളൂ പക്ഷെ എന്റെ പാര്ട്ടീടെ അടുത്ത് ഞാൻ ഈ വില പറയത്തില്ല പാര്ട്ടീടെ അടുത്ത് ഞാൻ വില ഈ വിലയെപ്പറ്റി സബ്മിറ്റ് ചെയ്യത്തില്ല അത് വേറെയൊരു വിലയെ പറയുള്ളൂ പറഞ്ഞിട്ട് അവനെക്കൊണ്ട് വന്ന് കണ്ടിട്ട് അവനെക്കൊണ്ട് പതുക്കെ അപ്പം നമ്മൾ തമ്മിലൊരു ഏകദേശം ഒരു ധാരണ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് പേടിക്കുകയൊന്നും വേണ്ട ആ വില്ല ഒന്നും അല്ല വില അതിൽ കൂടുതൽ കിട്ടും ഞാനൊരു ഒരു എക്സാമ്പിള് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് പേടിക്കേണ്ട അത് ആയിക്കോട്ടെ അതൊക്കെ ചോദിച്ചിട്ട് ഒക്കെ മതി അതിന് ശേഷം മതി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പന്ത്രണ്ടോ ശരി അത് കുഴപ്പം ഒന്നും ഇല്ല നമുക്ക് അവരോട് അവർ വരുന്ന പാര്ട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അതിനടുത്തൊക്കെ അവർ പറയും എന്തായാലും ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും ഈ പന്ത്രണ്ട് കിട്ടുമോ എന്ന് സംശയമാണ് എന്തായാലും ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് കച്ചവടം ചെയ്യാം കാരണം ഇത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട് എന്റെ കസ്റ്റഡിയിലുണ്ട് എടുക്കാനായിട്ടെ ഇങ്ങനെ ഉള്ള സ്ഥലം നോക്കി നടക്കുന്ന ഒന്ന് രണ്ട് പേർ എന്റെ കസ്റ്റഡീലുണ്ട് അപ്പം അവരോട് ഞാന് സംസാരിച്ചിട്ട് നല്ല വില കിട്ടത്തക്ക ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഏറ്റവും മാക്സിമം വില കിട്ടത്തക്ക ഞാന് ശ്രമിക്കാം പോരെ